നമ്മുടെ നാട്ടിലൊന്നും ഈ പറയുന്ന പോലെ ഈ ക് കാ കാളവണ്ടി ഓട്ടമോ കോ കോഴിപ്പോരോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഇതധികം കണ്ടു വരുന്നത് തമിഴ്നാട് ഭാഗത്താണ് തമിഴ്നാട്ടിൽ പോയ്കഴിഞ്ഞപ്പോൾ ഞാൻ പോയ്കഴിഞ്ഞപ്പോൾ ഞാനൊരുദിവസം പോയ്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റി കാളവണ്ടി ഓട്ടം അതുപോലെ കോഴിപ്പോര് ഒരു എന്താ പറയുക ഒരു കുറച്ച് ടീമുകളാണ് അത് ടീമ് പോലെയാണവര് വരുന്നത് ഒരു ടീമിനാത്ത് ഒരു കോഴിയുണ്ട് അടുത്ത ടീമിനാത്ത് അടുത്ത കോഴിയായിരിക്കും അങ്ങനെ കോഴികൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്ത് കൂടീട്ടാണ് നമ്മളീ മനുഷ്യമ്മാര് തല്ലുകൂടുന്ന പോലെതന്നെയാണ് കോഴികളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു കൂടി ജയിക്കുന്നെ അങ്ങനെയാണ് കണ്ടുവരുന്നത് പക്ഷേ അത്രയൊരു നല്ലൊരു നമുക്ക് കണ്ടോണ്ട് പോയികഴിയുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന നമ്മുക്ക് വലിയൊരു അതിലൊരു താല്പര്യം തോന്നില്ല എന്നതാന്നു വെച്ചാൽ രണ്ട് മൃഗങ്ങളും തമ്മിൽ കൊത്തുകൂടി ക കണ്ടിച്ച് ചോര വന്ന് അങ്ങനെയൊരു അവസരം നമുക്കത് കണ്ടിരിക്കാനോ അത് നമുക്കതിനെ ഉൾക്കൊള്ളാൻ ന്ത ഇല്ല പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും വന്നാലൊരു അങ്ങനയൊരു കണ്ടിട്ടില്ല ഞാൻ ഇതുവരെയായിട്ട് ആ ഭാഗങ്ങളിലാണ് കണ്ടുവരുന്നത്